ഇപ്പം എന്റെ പ്രദേശത്തായാലും ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയുക പരമ്പരാഗതമായിട്ടുണ്ടാക്കി വരുന്ന ഒര് എന്താ പറയുക വിഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട ബീഫ് അങ്ങനത്തെ ഫുഡുകളാണ് കൂടുതല് എന്താ പറയുക കേരളത്തില് ഉള്ളവര്ക്ക് താത്പര്യം ഉള്ളത് അപ്പോൾ അപ്പോൾ ഞാന് ജനിച്ചപ്പോള് മുതലെന്താ പറയുക പൊറോട്ടയും ബീഫോക്കെന്ന് പറയുമ്പോൾ ആള്ക്കാര്ക്ക് എന്താ പറയുക വലിയൊരു ഇതായിരുന്നു അവര് എവിടെ പോയിക്കഴിഞ്ഞാലും പൊറോട്ടയും ബീഫുമാണ് കഴിക്കുന്നത് ഞാന് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് പിന്നെ ഇന്ന് എന്ന് പറയുമ്പം ബിരിയാണിയൊക്കെ പണ്ടുതൊട്ട് ഞാന് കണ്ടിട്ടുണ്ട് പിന്നെ പഴയകാലത്ത് എന്താ പറയുക പല ഈ ചായ പഴയ കടകളില് എന്താ പറയുക കൂടുതലും ചായ കടകളൊക്കെയാണ് ആള്ക്കാര്ക്ക് കൂടുതലും താൽപര്യമായിട്ട് ഞാന് കണ്ടിട്ടുള്ളത് പഴയ ചായക്കട അതായത് കുറച്ച് പ്രായമായവരുടെ ചായക്കടയിലൊക്കെ പോയി ഇരിക്കുന്നതും അവിടത്തെ ചായ കടികള് ചെറു കടികള് ഒക്കെ അങ്ങെനെ കഴിച്ച് വരുന്നവരെയാണ് ഞാന് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് എന്താ പറയുക ഇത്തരത്തിലുള്ള വിഭവങ്ങളൊക്കെയാണ് എന്താ പറയുക ആളുകള് കൂടുതലായിട്ടും ഇപ്പം തേടിപ്പിടിച്ചു പോകുന്നത് പിന്നെ ഇപ്പോൾ എന്താ പറയുക പഴയ എന്താ പറയുക പഴയ ആളുക്കളൊക്കെയാണ് കൂടുതലായിട്ട് ഈ ചായക്കടകളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നത് അപ്പം അവര് അവരുടെതായ രീതിയിലുള്ള ഫുഡ്ഡൊക്കെ ഉണ്ടാക്കുന്നത് പകുതി എന്താ പറയുക നമ്മുടെ നാട്ടില് പകുതി ആള്ക്കാര്ക്കും വളരെ താത്പര്യം ആണ് അപ്പം അങ്ങനെയുള്ള കടകളില് കൂടുതലായിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പോന്നവരാണ് നമ്മള് കാണാറുള്ളത്